ഞാൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്നും രാവിലെ ഓടും എന്നും എന്ന് പറയാൻ പറ്റില്ല നമ്മൾ രാവിലെ ഓടും എന്നാൽ അത് ദിവസേന നിത്യേന നമ്മൾ അത് തുടർത്തി കൊണ്ടുവരാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ബോഡിക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ എന്താണ് പറയുക നമ്മളെ ബോഡിക്ക് ഏറ്റവും കൊടുക്കുന്ന ഏറ്റവും വലിയ എന്താണ് പറയുക ഒരു മുതൽ കൂട്ടാണ് അത് കാരണം എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴ്ന്നേക്കുമ്പം ഒരു മരണത്തിൽ നിന്ന് ഒരു പുനർജന്മം കിട്ടിയത് പോലെയാണ് കാരണം ഉറക്കം എന്നു പറഞ്ഞാൽ ഒരു മരണവും ഉണർച്ച എന്നു പറയുന്നത് ഒരു ജീവിതമാണ് അപ്പം ഈ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ഫ്രഷ് ആയിട്ട് നമ്മളെ ബോഡി മൊത്തം ടയർഡ് ലൂസായി കിടക്കുമ്പം നമ്മൾ അവർ കൊടുക്കേണ്ടത് ഏറ്റവും പ്രത്യേകിച്ചു കൊടുക്കേണ്ടതെന്നാണ് ഫുൾ ബോഡി വാമപ്പ് ആകുന്ന രീതിയിൽ ഒരു നല്ല ഒരു ലോങ് റണ് ലോങ്ങ് റണ്ണാവണമെന്നൊന്നും ഇല്ല ഒരു ടു കിലോമീറ്റേഴ്സ് അല്ലേ ത്രീ കിലോമീറ്റേഴ്സ് ഒക്കെ നല്ല സൂപ്പറായി റൺ ചെയ്യുക അത് രാവിലെ ഓക്കെയാണ് അതുപോലെ തന്നെ ബോഡി അത്യാവശ്യം നമ്മൾ പിന്നെ ചലപ്പിച്ചു അതൊക്കെ കഴിഞ്ഞു ഒരു ഉച്ച കഴിഞ്ഞു വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ എന്തു ചെയ്യും ബോഡി പിന്നെ ടയർഡ ആവും അപ്പോഴും നമ്മൾ ഒന്ന് ഓടി കൊടുക്കുകയാണെങ്കിൽ അത് ശീലമാക്കുക ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ അസറ്റ് ആണ് കാരണം നമുക്ക് അറിയില്ല നമുക്ക് ഈ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ക്യാപിറ്റൽ എന്നു പറഞ്ഞാൽ അവൻ്റെ ശരീരമാണ് അപ്പം ഈ എന്താണ് പറയുക

ഓട്ടം എന്നു പറഞ്ഞാൽ ദിവസേന ഉള്ള ഓട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരത്തിന് ഏറ്റവും വലിയ നമ്മൾ എടുക്കുന്ന പരിഗണനയാണ് പിന്നെ ഇതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്താണ് വച്ചാൽ എനിക്ക് അറിയാം എൻ്റെ നാട്ടിൽ ഒരു അറുപത് പിന്നിട്ട ഒരു കുട്ടിയാക്ക എന്നു പറയുന്ന ഞങ്ങൾ ഇന്നും വിളിക്കുന്ന ഒരു മുഹമ്മദ് ഉണ്ട് ആ കുട്ടിയാക്കാനെ ഇന്നും ഫിറ്റാണ് ഇന്നും ഫിറ്റാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്നും ഡെയിലി കൂലിപ്പണിക്ക് പോയി ആരോഗ്യം നോക്കി ജീവിക്കുന്നതാണ് ആരോഗ്യത്തിന് ഒരു പോറൽ പോലും അദ്ദേഹത്തിന് ഏറ്റിട്ടില്ല കാരണം എന്താണ് അദ്ദേഹം രാവിലെ പത്രം എല്ലാവരുടെയും വീട്ടിലേക്ക് പത്രം വരും എന്നാൽ ഞങ്ങളുടെ പത്രം കളക്ഷൻ പോയൻ്റായ കാളികാവ് അതായത് ഇവിടെ നിന്നൊരു മൂന്ന് മൂന്ന് പോയിൻറ് അഞ്ച് കിലോമീറ്ററുള്ള കാളികാവിലേക്ക് ആൾ ഡെയിലി ഒരു സുബഹി നിസ്കാരം കഴിഞ്ഞു അതായതൊരു അഞ്ച് മണി അഞ്ചര ആകുമ്പോൾ അദ്ദേഹം ഓടിപ്പോവും വീട്ടിലേക്ക് പത്രം വരാത്തത് കൊണ്ടല്ല എന്നാലും അവനവൻ്റെ ബോഡി അവനവൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഡെയിലി ഓടും മൂന്ന് കിലോമീറ്റർ നിത്യേന ഓടും അതാണ് ആ മനുഷ്യൻ ഈ ഇമ്മാതിരി പ്രായത്തിലും അതായത് നമ്മുടെ ലാലേട്ടൻ്റെ ഒക്കെ പ്രായമുള്ള ആൾ ഇന്നും പുട്ട് പോോലെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ കാരണമേയുള്ളൂ അദ്ദേഹത്തിൻ്റെ ദിവസേന നിത്യേനെ നിത്യേനയുള്ള ഓട്ടം എന്താണ് പറയുക നമ്മൾ ഒരു ജിമ്മിൽ പോയി കാർഡിയോ ചെയ്യുന്നതിനേക്കാളും അല്ലെങ്കിൽ ത്രെഡ്മിൽ യൂസ് ചെയ്യുന്നതിനേക്കളൂം ഏറ്റവും ഇതാണ് കാരണം പ്രകൃതിയും നേച്ചറൊക്കെ ആസ്വദിച്ചു നമ്മൾ ഓടുന്ന ഈ ഓട്ടമുണ്ടല്ലോ ദാറ്റ് വിൽ ബി ദ ബഗ്ഗസ്റ്റ് ക്യാപിറ്റൽ യു ഹാവ് എവേർ ടെൻ അപ്പം എന്നെ ഞാൻ പറയുന്നത് ഇമ്മാതിരി മനുഷ്യൻമാരുടെയൊക്കെ ലിവിങ്ങ് എക്സാമ്പിൾ നമ്മൾ കാണിപ്പിക്കുമ്പോൾ അതിലും വലിയൊരു പ്രചോദനം നമുക്ക് കിട്ടാനില്ല പിന്നെ രാവിലെയും വൈകന്നേരം ഓടിയാൽ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട നമ്മുടെ ബോഡി വിൽ ബി ഫുൾ ഫിറ്റ് ആൻഡ് ഓൾലൈറ്റ് അപ്പ് ടു അവർ ലിവിങ് ടൈം ഡാറ്റ് ഇറ്റ് നമ്മള ജീവിതത്തി ശാന്തി സമാധാനമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ രാവിലെ ഓടാൻ ശ്രമിക്കുക അതും നിത്യേന ഓടാൻ ശ്രമിക്കുക